ഹലോ ആ പറഞ്ഞൊ കൊറോണ വന്നതിന് ശേഷം എനിക്ക് ഇപ്പം കയറ്റം കയറാൻ പറ്റുന്നില്ല ജിമ്മിൽ പോയിട്ട് വർകൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല കിതപ്പ് ഭയങ്കരമയിട്ട് ഉണ്ട് ആ കിതക്കലും ആണോ

വാക്സിനേഷൻ എടുത്തതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമല്ല പക്ഷെ കൊറോണ വന്നു പോയതിൻ്റെ ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ട് കോറോണൻ്റെ പ്രശ്നങ്ങൾ പനി ചുമ ഇടക്കിടയ്ക്ക് വന്നു പോകുന്നുണ്ട് ചുമയൊക്കെ വന്നാൽ ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ ഇപ്പം നിക്കുന്നുണ്ട് ഒരു വില്ലൻചുമ പോലെയാണ് ഇപ്പം അതെ പക്ഷെ വന്നിട്ട് കുറച്ചായി ഞാൻ വാക്സിനേഷൻ എടുത്തതിന് ശേഷം എനിക്ക് ലൂസ് മോഷൻസ് ലേശം കൂടുതലായിട്ടാണ് ബ്ലെഡ് ടെസ്റ്റെല്ലാം കാണുന്നത് അപ്പം വാക്സിനേഷൻറ്റെ സൈഡ് എഫക്ടായിരിക്കുമോ അല്ലാതെ ഇങ്ങേരെ സിറ്റ്വേഷെൻസ് എന്തെങ്കിലുമുണ്ടോ അല്ല ഇപ്പം കൂടുതലും ഓ അപ്പം ഈ ഈ വാക്സിനേഷൻ എടുത്തത് വെറുതെ ആണെന്നാണോ പറഞ്ഞു വരുന്നത് അല്ല അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇപ്പം മൂന്ന് ഡോസ് വാക്സിനേഷൻ എടുത്തു പക്ഷെ എടുത്തതിൻ്റെ സെർട്ടിഫിക്കറ്റും കാര്യങ്ങളൊന്നും ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല അതിപ്പോൾ കിട്ടാൻ എന്തെങ്കിലും വേറെ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ